നമസ്കാരം ഒരുപാട് സന്തോഷം സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം എന്നെ ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിച്ചല്ലോ അതിന് തന്നെ ഒത്തിരി സന്തോഷം പുരസ്ക്കാരങ്ങളെ കിട്ടുന്നത് തന്നെയൊരു ഭാഗ്യമല്ലേ അതുപോലെ തന്നെ എന്താണ് പറയുക ജീവിതം മൊത്തത്തിൽ തന്നെ മാറിപ്പോയി ഇപ്പോൾ പുറത്തൊക്കെ പോവുമ്പോൾ എല്ലാവരും നമ്മളെ തിരിച്ചറിയുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും വന്നിട്ട് അടുത്ത് നിന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത് അവർ സ്നേഹങ്ങൾ ഒക്കെ നമുക്ക് തരുമ്പോൾ ഒരു സന്തോഷമല്ലേ എൻ്റെ അച്ഛൻ നല്ലൊരു ഗായകനാണ് മാത്രമല്ല സംഗീതത്തെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ആണ് എന്നെ ഈ സംഗീത ലോകത്തേക്ക് കൈ പിടിച്ച് നടത്തിയത് പിന്നീട് അങ്ങോട്ടൊക്കെ ഒരുപാട് ഗുരുക്കന്മാരെയും സംഗീതത്തിൻ്റെ സംഗീതജ്ഞരുടെ ഒക്കെ കീഴിൽ പഠിക്കാനും പറ്റി അവരുടെ കൂടെ എന്താണ് പറയുക പാടാനും ഒക്കെ അവസരം കിട്ടി അങ്ങനെയാണ് ഈ ലോകത്തേക്ക് ഞാൻ വന്നത് സംഗീത ലോകത്തേക്ക് ചെറുപ്പം മുതലേ ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഗായിക എന്ന് പറയുമ്പോൾ നമുക്കൊത്തിരി പേരുണ്ടല്ലോ ഇപ്പോൾ സുജാത ചേച്ചി ആയിക്കോട്ടെ ജാനകിയമ്മ ആയിക്കോട്ടെ ചിത്ര ചേച്ചി ആയിക്കോട്ടെ അവരൊക്കെ ഒരുപാട് സുശീലാമ്മ അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിത്ര ചേച്ചിയാണ് എൻ്റെ എല്ലാം മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടേയും പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ പാടി അഭിനയിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടി അത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു അതിലും വലിയൊരു പുരസ്ക്കാരങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടാൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയും സന്തോഷമാണ് എന്നും എൻ്റെ ആരാധകരോട് ഒരുപാട് സന്തോഷമുണ്ട് കാരണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അവർ ഒരുപാട് ത്യജിക്കുന്നുണ്ട് ആ എന്നെ നല്ല രീതിയിൽ പിന്തുണക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെതന്നെ ഒരുപാട് സഹായങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി മറ്റുള്ളവരെ എൻ്റെ പേരിൽ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് പാവപ്പെട്ടവരെ ഒക്കെ ആയിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് ഇനിയും അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റട്ടേയെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയും അവർ അതുപോലതന്നെ ചെയ്ത് അവരുടെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ കൂടെത്തന്നെ വേണം അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നിലയിലെത്തില്ല അത്രയും അവരെന്നെ പിന്തുണക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും എനിക്ക് മരിക്കുന്നത് വരെ ഈ സംഗീത ലോകത്ത് തുടരണമെന്നാണ് ആഗ്രഹം മറ്റുള്ളവർ എന്താണ് പറയുക ഒരിക്കലും വെറുക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മോശമായിട്ട് തോന്നാത്ത ഒരു നല്ലൊരു ഗായകനായിട്ട് വരാനാണ് എൻ്റെ താൽപര്യം അതാണ് എനിക്ക് ഇനി അയ്യോ ഇപ്പോൾ ഞാൻ ഒരു ബന്ധത്തിലുമല്ല ഇനി ഇപ്പോൾ ആയിക്കൂടായ്കയില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവുമെന്ന് നമുക്ക് അല്ലല്ലോ അറിയാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അടുത്തല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബന്ധത്തിലുമല്ല ഇനി ആയിക്കൂടാതെ ഇല്ല ഇപ്പോൾ എനിക്ക് സംഗീതത്തോട് മാത്രമേ താൽപര്യം ഉള്ളൂ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതിൽ എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എൻ്റെ പൂർണ്ണമായും സംഗീതമാണ് എൻ്റെ ലോകം ഒരുപാട് സന്തോഷം എന്നെ ഈ അഭിമുഖത്തിലേക്ക് വിളിച്ചതിനും നിങ്ങളെ ഈ തിരക്ക് പിടിച്ച അഭിമുഖങ്ങളൊക്കെ എല്ലാവരുമായിട്ടും നടത്തുന്നുണ്ടല്ലോ അതിൽ എന്നെയും ഈ എളിയ കലാകലാകാരനായ എന്നെയും ഉൾപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം എങ്ങനെയാണ് നിങ്ങളോടും നന്ദി പറയണ്ടേ എന്ന് തന്നെ അറിയില്ല ഇനിയും ഇതുപോലെതന്നെ എന്നെ ഇനിയും പിന്തുണയ്ക്കുക ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക നമുക്ക് ഈ യാത്രയിൽ മുന്നോട്ടേക്ക് പോകാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു നല്ലൊരു പ് പിന്തുണയുമായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു